ഞാൻ സത്യം പറഞ്ഞാൽ റോക്ക് ക്ലൈമ്പിംഗ് അങ്ങനത്തെ സംഭവം ആ ഒരു രീതി എന്താ പറയുക ക്ലൈമ്പിംഗ് രീതി അത് കുറേ രീതികളുണ്ട് അതിലിപ്പോൾ നമ്മൾ ഞാൻ അധികവും ഈ റോപ്പ് ഉപയോഗിച്ചു സേഫ്റ്റി മെഷർ ഉപയോഗിച്ചിട്ട് ചെയ്യണതാണ് എനിക്കിഷ്ടം പിന്നെ അതില് വെല്ലുവിളികളെന്ന് പറയുമ്പോൾ വഴുക്കല് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഷൂ നമ്മള് ഉപയോഗിക്കുന്ന ഷൂ നല്ല ക്വാളിറ്റി ഷൂ ആയിരിക്കണം പിന്നെ ശ്രദ്ധ വേണം ചാടിക്കേറി അങ്ങനെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ആവേശത്തിനൊന്നും ചെയ്യാൻ പാടില്ല എല്ലാ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മള് സൂക്ഷിച്ച് ശ്രദ്ധിച്ചു അത് മനസ്സിലാക്കി ആ സ്ഥലം മനസ്സിലാക്കി വേണം ചെയ്യാൻ പിന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ റോക്ക് ക്ലൈമ്പിങ്ങിലൂടെ നല്ലൊരു കോൺ ആത്മവിശ്വാസം കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് പണ്ട് അതായത് ഇത്രയും ഹൈറ്റിലേക്കൊക്കെ കയറി പോകുമ്പോൾ പല ആൾക്കാർക്കും ഹൈറ്റ് പേടിയാണ് അതുപോ അതുപോലെ എനിക്കും പേടിയായിരുന്നു അപ്പോൾ ഇത് പ്രാക്റ്റീസ് ചെയ്ത് പ്രാക്റ്റീസ് ചെയ്ത് ചെയ്ത് അതായത് കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ കയറി കയറി പരിചയമായി പരിചയമായി പിന്നെ ഇപ്പോൾ എനിക്ക് ഏത് മലയും കയറാമെന്നുള്ളൊരു കോൺഫിഡൻസ് ധൈര്യവും വന്നിട്ടുണ്ട്